ആ ഹലോ ഡോക്ടറല്ലേ ഞാന് മുക്കത്തിന്നു വിളിക്കുവാട്ടോ ആ എനിക്ക് ഭയങ്കര പനിയും ചർദ്ദിയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഏകദേശം വണ് വീക്ക് ആകാനായി ഇല്ല ഞാന് ഇങ്ങനെ മെഡിക്കല് സ്റ്റോർ ഷോപ്പിന്നു മരുന്ന് വാങ്ങിയായിരുന്നു പാരസെറ്റാമോള് അപ്പോൾ കഴിച്ചിട്ട് തീരെ കുറയണില്ല അങ്ങോട്ട്

ഒരു വണ് വീക്ക് ആകാന് അഞ്ച് ദിവസം കഴിച്ചിട്ടുണ്ടാകും അത് കുറയാന് കുറയണില്ല ആ പനിയും ഭയങ്കര തുമ്മലും ജലദോഷവും പിന്നെ ഭയങ്കര ക്ഷീണോക്കെയാ പിന്നെ ഇടക്ക് ചർദ്ദിച്ചായിരുന്നു പുറത്തുന്നു ആ ഒരു രണ്ട് ദിവസം മുന്നേ പുറത്തിന്നു കഴിച്ചായിരുന്നു ഇല്ല ഒരു രണ്ട് ദിവസം ആ ആ ആ ആ ആ ഇപ്പോൾ ഭയങ്കര ക്ഷീണമാണ് അതാണ് ആണോ ആ ആ ആ ആയിക്കോട്ടെ ആ ആ ആ ആയിക്കോട്ടെ ആ ആ ആ അതേലോ

ശാരിക

ആ ആയിക്കോട്ടെ ആ ഓക്കേ ഓക്കേ ഏയ് ഇല്ലില്ല നാളെ വരാം ആ ആയിക്കോട്ടെ ആ ഓക്കേ